കോഴിക്കോട് ജില്ലയിലൊക്കെ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ജില്ലയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണ് വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ മികച്ച മെച്ചപ്പെട്ട രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ആശുപത്രികൾ തന്നെയാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ആണെങ്കിലും ഗവൺമെൻറ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹാ ഹോസ്പിറ്റലുകൾ ഉണ്ട് അവൈലബിൾ ആണ് നല്ല നല്ല ഹോസ്പിറ്റലുകളും നല്ല സൗകര്യങ്ങളും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ പ്രൈവറ്റിൽ വേണമെങ്കിൽ പ്രൈവറ്റിൽ പോകാം പിന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട് എല്ലാ വിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർമാർ അതായത് നമുക്കെന്ന് പറയുകയാണെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്കിവിടെ കോഴിക്കോടിലെ പ്രൊഫസർമാരെയൊക്കെ കാണിക്കുന്ന ഒരുപാട് അതായത് ബുക്ക് ചെയ്തിട്ട് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഡോക്ടർമാരെ ഒക്കെയാണ് നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ കിട്ടുന്നത് നമുക്ക് വലിയൊരു മെച്ചപ്പെട്ട സൗകര്യം തന്നെയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ആശുപത്രികൾ അതായത് ക്ലിനിക്കുകൾ ഫാർമസികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻററുകൾ അങ്ങനത്തെ ഒരുപാട് പിന്നെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ലീക്രാ കമ്മ്യൂണിറ്റി ക്ലിനിക് കല്ലായി മെഡി പ്രൈ മെഡിക്കൽസ് അങ്ങനെ ഒരുപാട് നമുക്ക് അങ്ങനെയുള്ള കുറെ നമുക്ക് ആരോഗ്യ സേവനങ്ങളിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്